വളർത്തുമൃഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പശുവളർത്തൽ നല്ല ഒരു വരുമാനമാര്ഗ്ഗമാണ് പശൂനെ വളർത്തിക്കഴിഞ്ഞാൽ പത്തുമാസമാകുമ്പോള് പശു പ്രസവിക്കും പാലായി അത് എട്ടുമാസം വരെ പശൂനെ കറക്കാൻ നമുക്ക് പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തകുട്ടി വളര്ന്നുവരുമ്പോഴത്തേക്ക് ആ കുട്ടി തന്നെ നല്ലൊരു പൈസ കിട്ടും വിലയെകുറിച്ച് ഞാന് ഒന്നും പറയുന്നില്ല പലയിടത്തും പല വിലയായി രിക്കും പിന്നെ പശു പോലെ തന്നെയാണ് പോത്ത് പോത്ത് വളര്ത്തുന്നത് നല്ല ഒരു വരുമാന മാര്ഗ്ഗമാണ് പോത്ത് ഒരു പോത്തൊക്കെ വാങ്ങിച്ചു വളര്ത്തിക്കഴിഞ്ഞാല് അത് നല്ല ഒരു വരുമാനമുള്ളതാണ് പോത്തിനെ കുറിച്ച് ഇപ്പോൾ പറയാണെങ്കില് എനിക്ക് ഒരുപാട് പറയാനുണ്ട് നല്ല വരുമാനം പശുവിനെക്കാളും വരുമാനം പോത്തിനാണ് നല്ല പൈസയും കിട്ടും പിന്നെ ആട് ആടുവളർത്തലും അതുപോലെ തന്നെയാണ് ആടുവളർത്തിയാലും നമുക്ക് അതും നല്ല വരുമാനമാണ് അഞ്ച് മാസം ആകുമ്പോൾ ആട് പ്രസവിക്കുന്നുണ്ട് അത് രണ്ടു കുട്ടി കാണും ചിലപ്പോൾ മൂന്നു കുട്ടി കാണും അതും നല്ല വരുമാനമാണ് പോത്തും ആടും പശു ഒക്കെ നല്ല വരുമാനമുള്ളതാണ് പിന്നെ വളര്ത്തുമൃഗങ്ങള് പട്ടി പട്ടിയെക്കുറിച്ച് പറയുകയാണേങ്കിൽ അതും അതുപോലെ തന്നെയാണ് നല്ല പട്ടികളേയൊക്കെ വളര്ത്തുകയാണെങ്കില് പതിനായിരം രൂപ പതിനയ്യായിരം രൂപ വിലയുള്ള പട്ടികളൊക്കെ ഉണ്ട് പിന്നെ പൂച്ച നമ്മുടെ പൂച്ചയും ഞാന് വളർത്തീട്ടുണ്ട് പട്ടിയേയും വളർത്തീട്ടുണ്ട് അതൊക്കെ നല്ല വരുമാനത്തിലാണ് ഞാന് വളർത്തിയത് എല്ലാം പ്രസവിച്ച് ഒരുപാട് കുട്ടികളെയൊക്കെ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട് വളര്ത്തുമൃഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കില് അത് എല്ലാം നല്ല ലാഭകരമായ കാര്യങ്ങളാണ്